ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തുള്ള ആശുപത്രികളില് കൂടുതലായിട്ടും പ്രസവ ശുശ്രൂഷ അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ കുറവായിട്ടാണ് ഉള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടത്തെ നേഴ്സ്മാരുടെ ഒക്കെ വിചാരം അവര് മറ്റേ എന്തോ കൊമ്പത്തെ വലിയ ഡോക്ടറോ കാര്യങ്ങളൊക്കെ ആണ് നമ്മളോട് ഇപ്പോൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എന്തോ അവര് എന്തോ അവരുടെ അടിമയായിട്ടാണ് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തോ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം അവർക്ക് എന്തും ആവാം ഇപ്പം ഗവൺമെൻറ്റാണെങ്കില് നമ്മളെ അധികം നോക്കണ്ട അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരൊക്കെ ആണ് കൂടുതലായിട്ടും ഡോക്ടർ മാരാണെങ്കിലും ശെരിയാണ് അല്ലാത്തവരാണെങ്കിലും ശെരിയാണ് ഇപ്പം എല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷെ ഇവരുടെ ഒക്കെ ഒരു വിചാരം എന്താന്ന് വെച്ചാല് നമ്മള് പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാര് മാത്രം വരുന്ന ആദിവാസി വിഭാഗത്തിൽ പെട്ടവര് മാത്രമേ വരുന്നുള്ളു അങ്ങനത്തെ ഒരു ചിന്താഗതി ആണ് ഈ എന്താ പറയുക ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ശിശു പരിപാലനത്തിന് വേറെ നമ്മള് എന്ത് ചെയ്യുക കൂടുതലായിട്ടും പിന്നെ എൻ ഐ സി യു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഇല്ല ഇല്ലാത്തൊരു അവസ്ഥ ആണ് കുട്ടികൾക്ക് എന്തേലും പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മള് ഇവിടെ മേപ്പാടി ഒരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ട് പോകാറ് ഭയങ്കര ബുദ്ദിമുട്ട് കാര്യങ്ങളൊക്കെ നേരിടാറുണ്ട്